പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒന്ന് ആറ് രണ്ടായിരത്തി മൂന്ന് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന്